ഇന്ത്യൻ മ്യൂസിക്കിലെ ഐഡൽ എന്നു പറയുന്ന ഐഡലായി ഞാൻ കണക്കാക്കുന്നത് സൂപ്പർ സ്റ്റാർ സിങ്ങറിലെ അഞ്ജലി എന്നു പറയുന്ന കണ്ടസ്റ്റൻ്റാണ് അവരുടെ പാടുന്ന രീതിയും അവരുടെ പാടുന്ന ശൈലിയും വളരെ വ്യത്യസ്തമാണ് അവരെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അവരുടെ സൗണ്ടാണ് അവരുടെ സൗണ്ടിന് വളരെ പ്രത്യേകതയുണ്ട് അതേപോലെത്തന്നെ അവരുടെ പാട്ട് മൂലം അവരുടെ പാടുന്ന ശൈലി മൂലം ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് അവർ മ്യൂസിക്കിൽ കുറച്ചുംകൂടി അറിവ് നേടാനും അതേപോലെത്തന്നെ പലപല ടെക്നിക്കുകകളും പഠിക്കാനും അവരെന്നെ സഹായിച്ചിട്ടുണ്ട്